ഹലോ ഇത് റോയൽ ട്രാവലേജൻസിയല്ലേ ആ ഞാൻ മാത്യു ആണ് വിളിക്കുന്നത് ഞാനിന്നലെ നിങ്ങളെ ബന്ധപ്പെട്ടിരുന്നു ഞാൻ വിളിച്ചത് എന്താണെന്നു വെച്ചാല് ഇന്ന് രാവിലെ എനിക്കാണങ്കില് കന്യാകുമാരി വരെ പോകണം അതുവഴി കന്യാകുമാരിക്ക് ചെന്നൈ പിന്നെ എന്നായിരുന്നു ഡിണ്ടിക്കല് സേലം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ എനിക്ക് പോകേണ്ടതുണ്ട് കാരണം ഞാനാണെങ്കിലൊരു തുണിക്കച്ചവടം തുടങ്ങാനുള്ളൊരു പരിപാടിയിലാണ് അപ്പോള് എനിക്ക് തുണിയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ തമിഴ്നാട്ടിലിതിൻ്റെ കേന്ദ്രമാണല്ലോ അപ്പോള് അത് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടി ഇനി ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോകണം ആയിരുന്നു അപ്പോള് ഞാനാണങ്കില് തലേ ദിവസം നിങ്ങളുടെ ട്രാവലേജൻസിയെ വിളിച്ച് ക്യാബ് ബുക്ക് ചെയ്തിരുന്നു പക്ഷെ ഇന്ന് രാവിലെ എട്ട് മണിക്ക് വരാമെന്നാണെന്നോട് പറഞ്ഞത് പക്ഷേ എട്ട് മണിയായിട്ടും ഡ്രൈവറും വണ്ടിയും കണ്ടില്ല ആ എന്താണ് പ്രശ്നം എന്താണ് അവിടെ സംഭവിച്ചത് അതിന് വേണ്ടി അതറിയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് കാരണം നമ്മള് നേരത്തെ അഡ്വാൻസൊക്കെ തന്നു ഇങ്ങനെ റോയൽ ട്രാവലേജൻസിയെ കുറിച്ച് എപ്പോഴും പത്രത്തിൽ ഒക്കെ വരുന്നത് കാണാം അത് വളരെയധികം കസ്റ്റമേഴ്ഴ്സിനെ തൃപ്തിപ്പെടുത്തുകയും കാര്യക്ഷമമായിട്ട് നിങ്ങള് കാര്യങ്ങള് ചെയ്യുന്നുണ്ടെന്നൊക്കെ രീതിയില് വിശ്വാസത്തിലാണ് നമ്മള് വിളിക്കുന്നത് ഇതിപ്പോള് സമയം എൻ്റെ സമയാണ് പോയത് ഇപ്പോള് ദേ എട്ടേ എട്ടേമുക്കാല് ഒമ്പത് മണിയാവാറായി കാരണം സമയം പോകുന്ന എനിക്കവിടെ ചെന്ന് മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനുള്ളതാ അപ്പോള് അവിടെ കൃത്യമായിട്ട് മീറ്റിങ്ങ് പിന്നെ സമയത്ത് ചെല്ലണം അപ്പോള് ഞാനാണങ്കില് ട്രെയിനില് പോകാൻ വേണ്ടിയാണ് ഇത് പക്ഷെ ട്രെയിന് ചില അവിടുത്തെ റെയിൽവെയുടെ അല്ലെങ്കില് പണിയുടെ ചില പണികളവിടെ നടക്കുന്നുണ്ട് കാരണം ചില ട്രെയിനുകളൊന്നും അങ്ങോട്ട് പോകുന്നില്ല അതിനോരോ ട്രെയിനുള്ളത് ഉളളത് നല്ല ഭയങ്കര തിരക്കുമാണ് അപ്പോള് ഈ തിക്കിപ്പിടിച്ച് പോകണ്ടല്ലോ ബസേലാണങ്കിലെനിക്ക് ബസേക്കെ ഇരുന്ന് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കറേലാകുമ്പോള് അല്ലെങ്കില് ക്യാബ് വിളിച്ച് നമ്മള് പോകുവാണെങ്കില് നമുക്കിടയ്ക്കിടയ്ക്ക് എവിടെങ്കിലും നിർത്തുമോ അല്ലെങ്കില് എന്തെങ്കിലുമൊക്കെ മേടിക്കുവോ ഭക്ഷണ സാധനമോ അല്ലെങ്കില് വെള്ളം കുടിക്കാനൊക്കെ ആണെങ്കിലിടയ്ക്കൊന്ന് റസ്റ്റ് എടുക്കാനൊക്കെ ഇടയ്ക്കൊരു ബ്രേക്കിന് ഒരു ഇടവേള കിട്ടിയാല് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ ക്യാബ് വിളിച്ചത് ഇതിപ്പോള് പിന്നെ ഡ്രൈവര് എന്താണ് വരാത്തത് അത് അതിൻ്റെ കാരണമാണ് എനിക്കറിയേണ്ടത് അത് ഡ്രൈവർ കൃത്യ സമയത്ത് വന്നെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ടെനിക്ക് എൻ്റെ സ്ഥലത്തോട്ടൊക്കെ പോകാൻ പറ്റുകയുള്ളൂ ഇനി ഡ്രൈവറിനെന്താണ് സംഭവിച്ചതെന്നറിയാൻ വേണ്ടിയായിരുന്നു ഇല്ലെങ്കില് കാറിന് കുഴപ്പമൊന്നും ഇല്ലായിരിക്കുമല്ലോ ഡ്രൈവറിനെന്ത് സംഭവിച്ചു അയാളാണല്ലോ കാറെടുത്തുകൊണ്ട് വരേണ്ടത് കൃത്യസമയത്തയാളാണല്ലോ വരേണ്ടത് ഓ ആണോ അയാൾക്കെന്ത് പറ്റി ആണോ ഇനിയിപ്പോള് എന്നായിരുന്നു വേറെ ഡ്രൈവറെ അയാൾക്ക് എന്താ അസുഖായിരുന്നോ ഓ പനി ഹാർട്ട് അറ്റാക്ക് വന്ന മനുഷ്യനാണ് അല്ലേ ഓ ഇന്നലെ പെട്ടെന്നൊരു വേരിയേഷൻ പോലെ ഉണ്ടായി ആശുപത്രിയില് കൊണ്ടുപോയി ഇപ്പോള് വീട്ടില് റസ്റ്റ് എടുക്കുന്നു ഓ എനിക്കറിയത്തില്ലായിരുന്നു സോറി ക്ഷമ ചോദിക്കുന്നു കാരണം നമുക്കയാൾക്ക് അത്ര ഇച്ചിരി ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു ആളാണല്ലോ നമ്മള് അതിൻ്റെ ഇപ്പോള് അയാൾക്ക് മേലെങ്കില് നമ്മള് ആ റെസ്പ് ബഹുമാനം കാണിക്കണമല്ലോ തീർച്ചയായിട്ടും പിന്നെ ഞാനാണങ്കിലങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചൊന്നുമല്ല സമയം ഇത്ര ആയിട്ട് വരാത്തതുകൊണ്ട് മാത്രം ഞാൻ വിളിച്ച് ഇച്ചിരി ഫയർ ഇച്ചിരി ദേഷ്യം കേറിയെന്നെ ഉള്ളു നമുക്ക് കാര്യം അറിയത്തില്ലല്ലോ ആ കാര്യമറിഞ്ഞപ്പോൾ ആ എനിക്ക് സത്യാവസ്ഥ മനസ്സിലാകുന്നുണ്ട് കുഴപ്പമില്ല അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോളാം വേണമെങ്കില് അവരോടൊന്ന് ചോദിക്കാം യാത്ര അങ്ങനെ മാറ്റാൻ പറ്റുമോ അല്ലെങ്കില് അടുത്ത ദിവസത്തേക്ക് മീറ്റിങ്ങിന് വരാൻ പറ്റുമോന്നെന്തെങ്കിലും ചോദിക്കാം ഇന്ന് തന്നെ ചെല്ലണോന്നാണ് പറഞ്ഞത് കാരണം എട്ട് മണിക്ക് ഒരു മണിയാകുമ്പോഴായിരുന്നു ആദ്യത്തെ മീറ്റിങ്ങ് പിന്നെ എന്നേരുന്നു അവിടെ എനിക്ക് ജസ്റ്റൊന്ന് അവിടെ ഇന്ന സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാല്പ്പിന്നെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാം പിന്നെ വലിയ താമസമുണ്ടാകത്തില്ല പ്രധാനപ്പെട്ട മീറ്ററിങ്ങുകളൊക്കെ നമ്മള് സമയത്ത് ചെല്ലണം നമ്മളെപ്പഴും അങ്ങനെ ആണല്ലോ ഒരു മീറ്റിഞ്ഞിനു ചെല്ലുമ്പോള് നമ്മളതിൻ്റെ തൊട്ടടുത്ത നിമിഷം ചെന്നാല്പ്പോരല്ലോ നമ്മളിച്ചിരി നേരത്തെയൊക്കെ ചെന്നിട്ട് വേണമല്ലോ മീറ്റിങ്ങിനൊക്കെ നില്ക്കാൻ കൃത്യ സമയത്ത് നമുക്ക് തന്നെ മറ്റ് ആവലാതികളൊന്നൂല്ലാതെ മീറ്റിങ്ങിന് പോകാമല്ലോ ഇപ്പോഴിത്രയും ദൂരം എനിക്ക് പോകുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ട്രെയിനും അസൗകര്യം ഇല്ലാത്തതുകൊണ്ട് ട്രെയ്നുണ്ടെങ്കില് ഞാനൊരിക്കലും ട്രെ ട്രെയിനേ ഞാൻ എന്താ പോകുകയുള്ളൂ ക്യാബൊന്നും വിളിക്കത്തൊന്നും ഇല്ല ഞാനെൻ്റെ ജീവിതത്തിലിതുവരെയായിട്ടും ക്യാബ് വിളിച്ചിട്ടില്ല പിന്നെ പെട്ടെന്ന് എന്ന പിന്നെ ക്യാബ് സൗകര്യമൊക്കെ ഉണ്ടത് എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഡ്രൈവറൊക്കെ ആയിട്ട് എങ്ങനെയാണ് നിങ്ങളാ കാര്യങ്ങളൊക്കെ കൂ അതൊക്കെ അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ളൊരാകാംക്ഷയിലാണ് ഞാൻ ക്യാബ് വിളിച്ചത് അപ്പോള് ഇപ്പോള് ക്യാബാകുമ്പോള് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഒരു ഒരു ഒരു ഒരു എന്താണ് ഒരു ഒരിടം കിട്ടും ട്രെയ്നെന്നൊക്കെ പറയുമ്പോള് നമ്മളിപ്പോള് കയറിയാലും മാറ്റാൾക്കാരക്കെയുണ്ട് കാറില് നമ്മളും ഡ്രൈവറും മാത്രമേ ഉള്ളു ഡ്രൈവറിനോടോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതൊക്കെ ഒരു രസമാണല്ലോ ഇപ്പോള് ഇങ്ങനെ ആൾക്കാര് സംസാരിക്കാനിങ്ങനെ അല്ലെങ്കില് എന്താണ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നൊരു കാലഘട്ടത്തിലാണല്ലോ നമ്മള് ജീവിക്കുന്നത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും സംസാരിക്കാൻ സമയമില്ല അപ്പോള് ഇങ്ങനത്തൊരു സന്ദർഭത്തിലാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പോള് പ്രത്യേകിച്ച് പഴയ ആൾക്കാരൊക്കെയാണ് കൂടുതലും സംസാരിക്കുന്നത് ഇപ്പോഴത്തെ ആൾക്കാരൊന്നും അത്ര സംസാരിക്കത്തില്ല എല്ലാവരും ഈ ഫോണിൻ്റെ മുമ്പിലാണ് ഫോണ് അല്ലങ്കിൽ മറ്റെന്തെങ്കിലും പരിപാ ജോലിത്തിരക്ക് അല്ലെങ്കില് പാർട്ട് ടൈം ജോബ് ഒക്കെ ആയിരിക്കും ആ വിളിക്കാനൊക്കെ ആർക്കും സമയം കുറവാണ് കുറ്റം പറഞ്ഞിട്ട് കാര്യവുമില്ല സംസാരിക്കാനൊക്കെ സമയം കുറവാണ് അപ്പോള് ഇങ്ങനത്തെയൊക്കെ സന്ദർഭം നമ്മളുപയോഗിക്കുന്നത് ന നല്ലതാണല്ലോ യാത്ര നമ്മുടെ മീറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ ഇപ്പോള് നമ്മളൊരു യാത്ര ഞാനുദ്ദേശിച്ചത് അപ്പോള് നിങ്ങള് ഈ റോയല് കാബ് ട്രാവലേജൻസി നല്ലതാണെന്നാക്കെ പത്രത്തില് കണ്ടത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ ബന്ധപ്പെട്ടത് കാരണം എന്നായിരുന്നു എനിക്കത് പിന്നെ വളരെ പ്രധാനപ്പെട്ടൊരു മീറ്റിങ്ങാണ് അല്ലെങ്കില് ഡ്രൈവറെ നിങ്ങൾക്ക് വേറെ ഡ്രൈവറെ ഇനി കിട്ടിയാലേ ഇനി എന്നാ സമയത്ത് ആ കൃത്യ സമയത്ത് അവിടെ എത്തത്തില്ല കാരണം അവിടുത്തെ മീറ്റിങ്ങെനിക്ക് ഞാൻ വിളിച്ചപ്പോള് പോസ്റ്റ്പോണ് മാറ്റിയാ മാറ്റാൻ പറ്റത്തില്ലെന്നാണ് അവരെന്നെ അറിയിച്ചിരിക്കുന്നത് കാരണം ഒരു മണിക്ക് തന്നെ മീറ്റിങ്ങ് തുടങ്ങും അപ്പോള് എനിക്കണേ അത് കഴിഞ്ഞിട്ടാണല്ലോ എനിക്ക് ചെല്ലാൻ പറ്റുകയുള്ളു അവിടെ അപ്പോള് എന്തായാലും അടുത്ത ദിവസത്തേക്ക് ഞാൻ വരാൻ പറ്റുമോന്ന് ഞാൻ ചോദിക്കാം എന്തായാലും നിങ്ങളുടെ റോയൽ ട്രാവൽ ഏജൻസിയാണ് ഞാൻ ബന്ധപ്പെട്ടത് നിങ്ങള് തന്നെ എനിക്ക് നിങ്ങളെ മാറ്റത്തൊന്നും ഇല്ല നിങ്ങള് തന്നെ വേറൊരു ഡ്രൈവറെ വച്ചൊരു ക്യാബ് എനിക്കടുത്ത ദിവസം ഞാൻ വിളിച്ച് ചോദിക്കാം ഏത് ദിവസാണ് അവർക്ക് പറ്റുന്നതെന്ന് ചോദിച്ചിട്ട് ആ ദിവസം നമുക്ക് പോകാം എനിക്ക് പോകണം അപ്പോള് നിങ്ങളാ സമയത്ത് ഞാൻ പറഞ്ഞ അഡ്വാൻസ് തന്നെ തരേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ നേരത്തെ അഡ്വാൻസ് നിങ്ങള് എടുക്കുകയില്ലല്ലോ അല്ലേ ആ അതെടുത്താല് മതി പിന്നെ ഫുൾ എമൗണ്ട് എത്രയാ യാത്ര കഴിഞ്ഞ് ഞാൻ ഡ്രൈവറിനെ അല്ലങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ ഏൽപ്പിക്കാം ഡ്രൈവറിനെ ആണേലും ഏൽപ്പിക്കാം ആ ശരിയെന്നാ ഓക്കേ എന്നാല്